ഞാൻ ഓൺലൈൻ പെയ്മെൻ്റ് ആപ്പുകൾ ഒരുപാട് ഉപയോഗിക്കുന്ന ആൾ തന്നെയാണ് ഫോൺപേയാണെങ്കിലും ജീപേയാണെങ്കിലും തുടങ്ങിയ പേ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്ന ആളാണ് പക്ഷെ എനിക്ക് എനിക്ക് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ജീപേ തന്നെയാണ് ഫോൺ പേ അത്രയ്ക്കങ്ങോട്ട് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അതിൽ ഫോൺപേയിലെന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരുപാട് സ്പാംസൊക്കെ ഇതിൽ വന്നുകൊണ്ടേയിരിക്കും ഇടയ്ക്ക് എനിക്ക് അങ്ങനെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു അതിനി കോമണായിട്ടുള്ളതാണോ അതോ എന്താണെന്നെനിക്ക് കറക്റ്റായിട്ടറിയില്ല പക്ഷെ ഫോൺപേയിനെക്കഴിഞ്ഞും കുറച്ചുംകൂടെ യൂസ്ഫുള്ളായിട്ട് തോന്നിക്കൊണ്ടിരുന്ന കാര്യം ജീപേ തന്നെയാണ് ജീപേ വളരെ വിശ്വാസ്യത വിശ്വസനീയമായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റും സൊ ഭയങ്കര സെയ്ഫ് ആണെന്നുള്ള കാര്യമാണ് ജീപേയിൽ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് പക്ഷെ ഈ ജീപ്പേയിൽ തന്നെ എമൗണ്ട് നമ്മൾക്ക് വരുന്നതാണെങ്കിലും കറക്റ്റ് ഡീറ്റെയ്ൽസിൻ്റെ കറക്റ്റ് കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള ട്രാൻസ്മി ട്രാൻസ്മിഷൻസ് നമ്മൾക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഇതിനകത്ത് അറിയാൻ പറ്റുമെന്നാണ് അതുപോലെത്തന്നെ വരുന്നതാണെങ്കിലും പോകുന്നതാണെങ്കിലും അപ്പോൾത്തന്നെ നമ്മൾക്കതിനകത്ത് കിട്ടുന്ന റിവാഡ്സും അവാഡ്സുമൊ ക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് അതുപോലെ ഇതിൽ എന്താ പറയുക ഇല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളിൽ അറിയാവുന്ന ആർക്കെങ്കിലും നേരിട്ടുള്ള പ്രശ്നം എനിക്ക് ഇതുവരെ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ജീപ്പേയിൽ ഇതുവരെ വന്നിട്ടില്ല പക്ഷെ എൻ്റെ ഫ്രണ്ട്സിന് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഫ്രണ്ട്സ് എൻ്റെയടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കലി എമൗണ്ട് കട്ടാകുന്നു എന്തെങ്കിലും ബാങ്ക് വഴിയാണോ എന്താണ് സംഭവം എന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല പക്ഷെ ജീപേ യൂസ് ചെയ്യരുത് എന്ന് എൻ്റെ അടുത്ത് ഡൈറെക്റ്റ് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പക്ഷെ എമൗണ്ടിങ്ങനെ വന്ന് കട്ടാകുന്നു എന്നും അതിനകത്ത് ഇത് ചെയ്യരുതെന്ന് പറയുമായിരുന്നു എന്താ അതിൽ നിന്ന് ലോണെടുക്കരുത് കടം എടുക്കരുതെന്ന് പറയും പക്ഷെ ചില ഫ്രണ്ട്സ് പറയുന്നതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കടം എടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സിബിൽ സ്കോറുണ്ടായിരുന്നാൽ മതി വേറെ പ്രശ്നം ഉണ്ടാകില്ലായെന്ന് പറയും പക്ഷെ ചില ഫ്രണ്ട്സ് എൻ്റെയടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് ലോണെടുക്കാൻ നിൽക്കരുത് പക്ഷെ ലോണെടുക്കാൻ നിന്നാൽ ചിലപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു ലോണിൽ നിൻ്റെ ഡീറ്റെയ്ൽസൊക്കെ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്നിട്ട് ലോണിന് ഗെറ്റ് ലോണെന്നൊക്ക പറഞ്ഞിട്ട് കിടക്കുന്നതിനകത്ത് ഏതെങ്കിലും ഒരു ലോണിൽ കയറിട്ട് ക്ലിക്ക് ചെയ്ത് നിൻ്റെ ഡീറ്റെയ്ൽസൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഫോണിൽത്തന്നെ ഹാക്കാവാനുള്ള ചാൻസുണ്ട് അല്ലെങ്കിൽ നിൻ്റെ പേഴ്സണൽ ഡീറ്റെയ്ൽസൊക്കെ അവർക്കും അവർക്കെടുക്കാൻ പറ്റും എന്നൊക്കെപ്പറഞ്ഞിട്ട് കു റച്ച് ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ള കൂട്ടുകാരും എനിക്കുണ്ടായിരുന്നു സൊ അതുകൊണ്ട് ജീപേ ജീപേയിലും ഫോൺ പേയ്ലും സെയിം ആസ് ഇതുതന്നെയാണ് പക്ഷെ ഞാൻ എനിക്കും എനിക്ക് ജീപേയിലങ്ങനെയൊരു പ്രശ്നം വന്നിരുന്നു എന്നുവെച്ചാൽ ഞാൻ അതിൽ നിന്നൊരു ഗെറ്റ് ലോൺ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ലോണെടുക്കാൻ വേണ്ടി കുറച്ച് അധികം ഡീറ്റൈൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റോടെ സബ്മിറ്റ് മാത്രം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു പേടികൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവസാനം അതിൽ വന്നിട്ട് എനിക്ക് അതിൽ വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ ഫോണിനകത്തെ ഡീറ്റൈൽസ് ഫുള്ള് പോകുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ ഡീറ്റെയ്ൽസും പോയി ഫോൺ ഫുൾ ഫോർമാറ്റ് ആയി പഴയതുപോലൊരു പുതിയ ഫോൺ നമ്മൾ കടയിൽ നിന്നെങ്ങനെ വാങ്ങിക്കുമോ അതുപോലെത്തന്നെ എൻ്റെ ഫോൺ പഴയതുപോലെ ആവുകയായിരുന്നു ചെയ്തത് പിന്നെ ഫോൺ കോണ്ടാക്റ്റ്സ് എല്ലാംതന്നെ പോയിട്ട് പക്ഷെ ലോണെടുക്കുന്ന കാര്യത്തിൽ മാത്രം എനിക്കൊരു ചെറിയൊരു പ്രശ്നം ജീപ്പേയിലാണെങ്കിലും ഫോൺപ്പേയിലാണെങ്കിലും തോന്നിയിട്ടുണ്ട് അല്ലാതെ ബാക്കിയുള്ള എന്താപറയുക എമൗണ്ട് ട്രാൻസ്ഫെർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എമൗണ്ട് സേവ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എനിക്ക് ജിപേയിൽ പ്രശ്നമുള്ളതായിട്ടൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല